മൃഗങ്ങൾക്ക് മേയാനായിട്ട് പച്ചപ്പുള്ള സ്ഥലങ്ങള് ലഭ്യമാണെന്നുവെച്ചാല് വളരെ ചുരുക്കം തന്നെ എന്നു പറയാം കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് എന്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാല് പശുവും ആടും കോഴിയും എല്ലാം ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു അപ്പോൾ നമ്മൾ കൂടുതൽ പ്രത്യേകിച്ച് കൈത്തീറ്റ ഒന്നും കൊടുക്കേണ്ട കാര്യങ്ങളില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ കാലാവസ്ഥ ഭയങ്കരമായിട്ട് മാറിയില്ലേ ചൂടാണെകില് ഭയങ്കര ചൂട് മഴയാണെങ്കില് അതിന്റെ അതിന്റെ അപ്പുറത്തെ മഴ ഭയങ്കരമായിട്ട് ഒരു വല്ലാത്ത അവസ്ഥ അത് നമ്മളെ ബാധിക്കുന്നത് പോലെ തന്നെ മൃഗങ്ങള്ക്കും വല്ല വല്ലാണ്ട് അത് ബാധിക്കുന്നുണ്ട് നേരത്തെയൊക്കെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഴിച്ച് വിട്ടിട്ട് അതുങ്ങളെ തീറ്റ തിന്നാൽ തിരിച്ചു വരും അത് രാത്രിയിൽ ചേക്കേറുന്ന സമയാവുമ്പം തിരിച്ചുവരും പശുവിനെയാണേലും കൊണ്ട് കെട്ടാന് സ്ഥലങ്ങളുണ്ടായിരുന്നു ആടിനെയാണേലും കൊണ്ട് കെട്ടാന് ഇപ്പം അങ്ങനെയില്ല ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെന്ന് പറഞ്ഞാൽ പച്ചപ്പ് ഉള്ള സ്ഥലങ്ങൾ കുറച്ച് ദൂരത്താണ് ഉള്ളത് അവിടെക്കൊണ്ട് നമ്മൾ മൃഗങ്ങളെ കൊണ്ട് കെട്ടുകയെന്നു പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം തിരിച്ചു കൊണ്ടുവരാനും കൊണ്ട് കൊണ്ട് കെട്ടാനും ഉള്ള ബുദ്ധിമുട്ടുകൾ അത് കാരണം ഞങ്ങൾ എന്റെയും സമയം ഉള്ള സമയങ്ങളില് പോയി ആ സ്ഥലങ്ങളില് പോയി പുച്ചം പുല്ലുകള് ചെത്തിക്കൊണ്ട് വന്ന് ഇതുങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതു മാത്രല്ല വേറെ കുറച്ച് സ്ഥലങ്ങൾ അപ്പുറത്തേക്ക് മാറി ഉള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ മിക്കവാറും കുറേ സ്ഥലങ്ങളിലും ഇപ്പോഴത്തെ ഈ പ്ലാസ്റ്റിക്കും ഇങ്ങനത്തെ കാര്യങ്ങള് ഒക്കെ വളരെ അകൃതമായിട്ട് കിടക്കുകയാ പ്ലാസ്റ്റിക്കെല്ലാം വീണ് അപ്പോൾ ഈ മൃഗങ്ങള്ക്കാണെങ്കിലും അത് ബുദ്ധിമുട്ടാണ് വെള്ളമാണെങ്കിലും വളരെ വൃത്തികെട്ട രീതിയിലുള്ള വെള്ളമാണ് അതിന്റെ അടുത്ത് ഉള്ളത് ഇത് കുടിക്കാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മേച്ചില്പ്പുറങ്ങളിലേക്ക് കെട്ടാന് മേയാന് വിടാതെ നമ്മൾ വീട്ടിൽ തന്നെ പുല്ലു ചെത്തിക്കൊണ്ട് വന്നു കൊടുക്കും നല്ല വെള്ളങ്ങൾ കൊടുത്ത് അങ്ങനെയൊക്കെയാ ചെയ്യുന്നത് പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ആടും ഒരു പശുവും ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ വളരെ സുന്ദരമായിട്ട് നടന്നു പോകുമായിരുന്നു മൊട്ടകളപ്പി ഇന്ന് ഇപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ കോഴികളൊക്കെ ആണേലും നമ്മുടെ പറമ്പിൽ പുല്ലുകളില്ല കൊത്തി തിന്നാനായിട്ട് പിന്നെ പിന്നെ പശുവിനും അത് തന്നെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത് മാത്രമേ അതുങ്ങൾക്ക് തിന്നാന് പറ്റുന്നുള്ളൂ അപ്പോൾ അത് കിട്ടുന്നതും വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോഴത്തെ രീതിയിൽ പരിസ്ഥിതി മാറ്റങ്ങൾ കാരണം മൃഗങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങള് നമുക്ക് വന്നിരിക്കുന്നത് പോലെ തന്നെ അവര്ക്കും ഉണ്ടായിട്ടുണ്ട്